ഹലോ എ ആർ ട്രാവെൽസ് അല്ലെ ആ എൻ്റെ പേര് നന്ദഗോപാൽ എനിക്കൊരു പതിനാറ് പതിനേഴ് ആ ഒരു ലെവലിലുള്ള ആ ഒരു സീറ്റിലുള്ള വണ്ടി വേണമാരുന്നു ആ അത് മറ്റേ ഈ ഒരു ആ ഏട്ടൻ്റെ മകൻ്റെ ചോറൂണാണ് അപ്പോൾ ഗുരുവായൂർ വരെ ഒന്ന് പോകാമെന്ന് വച്ചിട്ടാണ് ഫാമിലീസ് ഒക്കെ ആയിട്ട് ആ ഒരു പതിനേഴ് ഒര് രണ്ട് മൂന്ന് ഫാമിലീസ് ഉണ്ട് അപ്പോൾ ആ ആ ജോയിൻ്റ് ഫാമിലി ആയതുകൊണ്ട് ആ ഓക്കെ ഈ മൂന്ന് ഫാമിലീസ് ഉണ്ട് ആ ഒരു പതിനേഴ് സീറ്റുള്ളൊരു വണ്ടി വേണമായിരുന്നു ട്രാവലർ അല്ലെങ്കിൽ ചെറിയൊരു ബസ്സാണെങ്കിലും ഓക്കേ ആണ് ആ പോയിട്ട് ഇവിടെ നിന്ന് ആ ഗുരുവായൂർ വരെ അല്ലെ ഉള്ളൂ അത്ര ദൂരം ഒന്നും ഇല്ലല്ലൊ ഓക്കെ ആ പോയിട്ട് അവിടെ സ്റ്റേ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം തിരിച്ചു വരാം ആ ഓക്കെ ഓക്കെ ആ ജസ്റ്റ് ആ ഏട്ടൻ്റെ മകൻ്റെ ചോറൂണായതിനെക്കൊണ്ട് ചോറു കൊടുത്ത് അങ്ങനെ അങ്ങനെ തൊഴുത് അങ്ങനെ വരാം എന്നുള്ളൊരു പ്ലാൻ ആണ് ആ ഓക്കെ ആ എത്രയാവും റെയ്റ്റ് എത്ര ആവും ഓഹ് അത്രയാവും അല്ലെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ വേറെ ആ വേറെ വേറെ വണ്ടി ഒന്നുമില്ല അല്ലെ വേറെ വണ്ടിയില്ല അല്ലേ ട്രാവലർ മാത്രമേ ഉള്ളു അല്ലെ ഓക്കെ ആ ഓക്കെ പഴയതൊരണ്ണം ഉണ്ടാരുന്നല്ലോ പഴയതല്ല ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതെ അത് അത് അത് ഓട്ടത്തിന് പോയിരിക്കുകയാണ് അല്ലെ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി ആ എന്നാൽ ഓക്കെ ഇത് മതി ഓക്കെ ആ റേറ്റ് ആ ഓഹ് അത്ര ആ കുറയ്ക്കാൻ പറ്റില്ല അല്ലേ ഓക്കെ ഓക്കെ ശരി ഓക്കെ ആ ആ അല്ല നമ്മൾ വെള്ളിയാഴ്ച്ച ആണ് നമ്മൾ വെള്ളിയാഴച്ച വൈകിട്ട് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ അതെ വെള്ളി കഴിഞ്ഞ് ശനി ഞായർ എന്തായാലും ലീവ് ആണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് പോവാം എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യാം എന്നിട്ട് ശനിയാഴ്ച അങ്ങനെ ചോറൂണ് കഴിഞ്ഞ് തൊഴുത് ആ ഒരു വൈകുന്നേരം ഇറങ്ങാം എന്നിട്ട് വരുന്ന വഴിക്ക് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറാം ജസ്റ്റ് ബീച്ചോ എവിടെയെങ്കിലും അത് വരുന്ന വഴിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ വണ്ടി മാത്രം റെഡിയാൽ മതി നമ്മൾ ബാക്കി ആലോചിക്കാം പ്ലാൻ ചെയ്യാം വരണ വഴിക്കും പോകണ വഴിക്കും വരണ വഴിക്കും നമുക്ക് ആലോചിക്കാം ഓക്കെ എന്നാൽ ഓക്കെ വണ്ടി വേറെ പഴയ വണ്ടി പോയല്ലേ ആ ആ ഓക്കെ ആ നീ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിൻ്റയടുത്ത് ഇത്രയും ഫ്രീ ആയി സംസാരിക്കുന്നത് ഓക്കെ ആ ആ നീ പറ്റുകയാണെങ്കിൽ കുറച്ച് കുറച്ചിട് ആ ഫാമിലി ആയിട്ടൊക്കെ പോവുകയല്ലേ പൈസേൻ്റെ ചിലവൊക്കെ ഉണ്ടാവും അറിയാമല്ലോ നിനക്ക് കുറച്ച് പറ്റുകയാണെങ്കിൽ കുറച്ച് കുറച്ചിട് ആ ഓക്കെ എടാ ശരി എന്നാൽ